വീടും പരിസരവും കഴിവതും വൃത്തിയാക്കിയിടാൻ പരിശ്രമിക്കും അതിന് അത് വൃത്തികേടാകുന്നുണ്ടെങ്കിൽ തന്നെ അത് വേണ്ടവിധം വൃത്തിയാക്കിയിടും വീടും പരിസരവും മുറ്റം വൃത്തിയാക്കിയിടുക പരിസരം വൃത്തിയാക്കിയിടുക നമ്മുടെ വീടിൻ്റെ റെയില് പുറത്തോട്ടുള്ള എൻട്രൻസിൻ്റെ സൈഡുകൾ വൃത്തിയാക്കിയിടുക അത് നമ്മുടെയിപ്പോഴൊരു പൊതുവഴി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് വശവും മനോഹരമാക്കാനായിട്ട് നമ്മളെക്കൊണ്ടെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും തൂത്ത് ചപ്പുചവറുകൾ കളയാം കൂടാതെ ഇരു സൈഡുകളിൽ സൈഡുകളിലും നല്ല നല്ല ചെടികൾ വെച്ചു പിടിപ്പിച്ച് മനോഹരമാക്കാം അങ്ങനെയൊക്കെ വീടും പരിസരവും വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കും പിന്നെയതുപോലെ പ്ലാസ്റ്റിക്ക് പോലെയുള്ള സാധനങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യാനായിട്ടു ശ്രമിക്കും നമ്മുടെ വീടിൻ്റെയും പരിസരം വീടും പരിസരത്തും വീട്ടിലും പരിസരത്തുമൊന്നും പ്ലാസ്റ്റിക്ക് ഉൽപ്പന്നങ്ങളോ വെറുതെ വലിച്ചെറിയാതെ അത് നിക്ഷേപിക്കേണ്ടയിടത്ത് നിക്ഷേപിക്കുകയും അത് എടുത്തുകൊണ്ടുപോകാൻ വരുന്നവർക്ക് കൃത്യമായിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം ശ്രമിക്കും പിന്നെ പരിസരത്ത് ഒരു വസ്തുക്കളും വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കെടാൻ കിടക്കാൻ അനുവദിക്കാതിരിക്കുകയും എപ്പോഴും നല്ല ശുചിത്വമുള്ളതായി സൂക്ഷിക്കാനായിട്ടും പരിശ്രമിക്കും നല്ല മനോഹരമായിട്ടുള്ള ചെടികളോ പുൽച്ചെടികളോ പൂക്കളുള്ളതും പൂക്കളില്ലാത്തതുമായ മനോഹരമായ ചെടികളൊക്കെ വീടിൻ്റെ വീടും പരിസരത്തിലും വെച്ച് പിടിപ്പിക്കുക ഒരു പ്രത്യേക സെക്ഷൻ ഔഷധത്തോട്ടങ്ങളുണ്ടാക്കുക അതൊക്കെ നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് വീട്ടിൽ എപ്പോഴും പരിസരത്തുമൊക്കെ കൊതുക് ശല്യങ്ങളൊന്നുമുണ്ടാകാതിരിക്കാനായിട്ട് വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനും അങ്ങനെ കൊതുകിൻ്റെ ഉപദ്രവത്തിൽ നിന്നുമൊക്കെ രക്ഷ നേടാനും സാധിക്കും അതിന് നമ്മൾ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കാറുണ്ട് എല്ലാ ദിവസവും മുറ്റത്ത് മുറ്റമടിക്കുക പരിസരം വൃത്തിയാക്കുക ഇതൊരു പ്രത്യേക സമയമതിനുവേണ്ടി മാറ്റി വെക്കാറുണ്ട് അതുപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം വഴിയാണെങ്കിൽ വഴിയും പരിസരവും വൃത്തിയാക്കുന്നതിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയും ഇങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ചെയ്യണം അതിന് കഴിവതും പരിശ്രമിക്കാറുണ്ട്